ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്രാമത്തിലൊരു വീട് പണിയുമ്പോൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഏതുപോലെ കാലാവസ്ഥ വന്യജീവി നമ്മുടെ തൊഴിലുകൾ അതുപോലെ കുടുംബാംഗങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ അടുക്കള കക്കൂസ്സ് വാസ്തു ആരാധനാലയം അതുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഗ്രാമത്തിലൊരു വീട് പണിയുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഒരുപാട് നല്ല മഴയുള്ള ഒരു സമയത്ത് നമ്മുടെ വീട് പണി നടക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് നമുക്കൊക്കെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് കാരണം എന്താന്ന് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീട് പണിയാൻ നിൽക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ വീട് പണിയുന്നതിൽ ഒരു കാര്യവും ഉണ്ടാവുകയില്ല കാരണം നമ്മൾ അതിൽ തേക്കുന്ന സിമെൻറുകൾ അത് അല്ലെങ്കിൽ നമ്മൾ അതിൽ ചേർക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒലിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ അത് ചേർക്കാൻ പറ്റുകയില്ല അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല വീടുകൾ പണി നടത്താൻ പറ്റുകില്ല പിന്നെ വന്യജീവി വന്യജീവി എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവികൾ ജന്തുജാലങ്ങൾ ഇപ്പോൾ സിംഹവും കടുവയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വീട് പണിയുക എന്ന് പറയുമ്പോൾ വളരെ വലിയ പൊട്ടത്തരമായിരിക്കും കാരണം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും നമ്മുടെ ജീ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീട് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വന്യജീവികൾ ഉള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് വീട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ജീവന് തന്നെ അ ആപത്താണ് അപ്പം വളരെ വലിയൊരു മണ്ടത്തിൽ മണ്ടത്തരത്തിലേക്ക് ആയിരിക്കും നമ്മൾ ചെന്നെത്തുക അതുകൊണ്ട്

വീടുകളാണ് നമ്മൾ വയ്ക്കേണ്ടത് നമ്മൾ പത്ത് കോടിയുടെ വീട് വെറും ദിവസം ഇരുന്നൂറോ മുന്നൂറോ രൂപ കൂലി കിട്ടുന്ന ഒരാൾ വെച്ചിരിക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ വളരെ വലിയ മണ്ടത്തരമാണ് കാരണം നമ്മളെ കൊണ്ട് അത് സാധിക്കുകയില്ല പിന്നെ അതുപോലെ തന്നെ കുടുംബാങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ ആ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം നമ്മളുടെ നമ്മൾ പണിയുന്നതാകുന്ന വീടിൻ്റെ ചുറ്റുപാട് ചുറ്റുപാടിൽ ഉണ്ടായിരിക്കണം അതുപോലെ ആ വീട് എന്ന് പറയുമ്പോൾ അതിനൊരു അടുക്കള ഉണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള കക്കൂസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം

അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധി ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള വീടുകളാണ് നമ്മുടെ ഗ്രാമത്തിൽ കാണുന്നത് എന്ന് വെച്ചിരിക്കുന്നത് ഉണ്ടെങ്കിൽ പല തരത്തിലുള്ളത് കാണുന്നുണ്ട് ഓട് ഇട്ടതുണ്ട് അതുപോലെ വാർപ്പ് ഉള്ളത് ഉണ്ട് ഇപ്പം നിലവിൽ ഇപ്പം നമ്മൾ കാണ കണ്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പം പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീടുകളൊക്കെ എങ്ങനത്തെ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർപ്പായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഓടെല്ലാം മാറ്റിയിട്ട് ഇപ്പം വാർപ്പിലേക്ക് മാറിയത് പണ്ടത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഓലയൊക്കെ ആയിരുന്നു പിന്നെ അത് ഓടായി ഇപ്പം അത് വാർപ്പായിരിക്കുകയാണ്